ആ നമസ്കാരം പറയൂ വരൂ ആ ആയിക്കോട്ടെ ആറ് മാസം കൊണ്ടോ ആറ് മാസം കൊണ്ട് ഒന്നും തെങ്ങ് തൈ കായ്ക്കില്ല മിനിമം മൂന്ന് കൊല്ലം എടുക്കും ആ ആറ് മാസം കൊണ്ട് ഒന്നും തെങ്ങും തൈ കായ്ക്കില്ല ഇല്ല ഇല്ല ഇല്ല അയ്യോ അത് ഒന്നും ഇല്ല മൂന്ന് മാസം അത് എല്ലാം വെറുതെ പറയണതാണ് കേട്ടോ ആറ് മാസം കൊണ്ട് ഒന്നും തെങ്ങും തൈ കായ്ക്കില്ല നമുക്ക് മിനിമം ആറ് മൂന്ന് കൊല്ലം എടുക്കും അത് വളർന്ന് വരണ്ടേ മിനിമം ഒരു മൂന്ന് അടി നാല് അടി ഹൈറ്റ് വരണ്ടേ അത് അത് അത് വേണം അല്ലൊ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത് നാടൻ ഉണ്ട് പിന്നെ കാസർഗോഡ് കുള്ളൻ ചാവക്കാട് കുള്ളൻ ചെന്തെങ്ങ് ഉണ്ട് ടീൻമുടി ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ചെന്തെങ്ങ് നമ്മള് എന്താ പറയുക അധികം ആൾക്കാര് ഉപയോഗിക്കുന്നത് ഈ വെള്ളം ഇളനീര് കുടിക്കുക അങ്ങനത്തെ ഇതിന് ആണ് മെയിൻ ആയിട്ട് ആൾക്കാര് ഉപയോഗിക്കുന്നത് ചെന്തെങ്ങിൻ്റെ പിന്നെ വന്നിട്ട് അത് ഉണ്ടാവും മിക്കവാറും ഇപ്പോൾ ചെന്തെങ്ങിൻ്റ നമ്മള് ആ ഒര് പത്ത് ഇരുപത് കുല ഒക്കെ ഉണ്ടാവും ഒരു കുലയില് പത്ത് ഇരുപത് എണ്ണം ഒക്കെ എന്തായാലും ഉണ്ടാവും കുഴപ്പം ഇല്ല അത്യാവശ്യം നല്ലതാണ് പിന്നെ അങ്ങ് പോവുന്നതാണ് പിന്നെ നമുക്ക് ടീൻമുടി ആണ് ഇപ്പം പറഞ്ഞതിൽ ഇപ്പോൾ നേരത്ത പറഞ്ഞില്ലെ ടെക്നോളജി ഒക്കെ വെച്ച് ഉണ്ടാക്കിയ സാധനം ടീൻമുടി ഒക്കെ ആണ് അത് ഒക്കെ ആവുമ്പം ഹൈറ്റും വരില്ല ഒര് നാലടി ഒക്കെ ഹൈറ്റ് വരൂള്ളു നമുക്ക് നല്ല രീതിക്ക് അപ്പം അത്യാവശ്യം എങ്ങനെ ആണ് കൂ കൂടുതൽ സ്ഥലം ഉണ്ടോ എങ്ങനെയാണ് അതെ അല്ലെ ആ ഞാൻ പറയാണെങ്കില് ഒരു ചെട്ടി നമുക്ക് നാടൻ തന്നെ വെച്ചാൽ മതി അത് ആവുമ്പം കാറ്റിൻ്റ പ്രശ്നം വരില്ല ചെട്ടി നാടൻ ഒക്കെ ഇടയില് മറ്റെ നമ്മുടെ ടീൻമുടി അതുപോലത്തെ ചെറിയ ചെറിയ തെങ്ങുകള് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൻ്റ പ്രശ്നം അല്ലെങ്കിൽ വേറെ കേടോ അങ്ങനെ ഒന്നും വരില്ല

ഇരുന്നൂറൊന്നും പറ്റില്ല ഒര് ഏക്കറിലെന്ന് പറയുമ്പം നമുക്ക് ഒരു രണ്ട് തെങ്ങിൻ്റ ഇടയില് വന്നിട്ട് ഒരു ഇരുപത്തഞ്ച് അങ്ങനെ ഗ്യാപ്പ് വരണം രണ്ട് തെങ്ങിൻ്റെ ഇടയില് മിനിമം പതിനഞ്ച് ആണ് നമ്മള് ആ അതായത് ഇപ്പം അങ്ങനെ പറയാറില്ല ഒരു പത്ത് മീറ്റർ അത്ര എങ്കിലും സാധാരണ ഗ്യാപ്പ് വെക്കണം എന്താന്ന് പറയുമ്പം ആ തെങ്ങുകൾ തമ്മിൽ ഉള്ള ഒരു പ്രശ്നം വരും ഓക്കെ അപ്പം അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ആവും മറ്റെ എങ്ങനെ ആണ് വെക്കുക വെച്ച് പരീക്ഷിച്ചിട്ട് ഉണ്ടോ അതോ ആദ്യം ആയിട്ട് വയ്ക്കുവാണോ ആ അപ്പോൾ അതിൻ്റ കാര്യങ്ങളെന്ന് പറയുമ്പം നമ്മള് തെങ്ങിൻ്റ കൂലി ഒര് അഞ്ച് കഞ്ച് കുഴി ആണ് എടുക്കണ്ടത് അതിൽ അത്യാവശ്യം വളം ഒരു ദിവസം അപ്പം അവിടെ വളം ഇട്ട് വെക്കണം അപ്പോൾ നമ്മുടെ ചാണകം അതുപോലെ കോഴിക്കാട്ടം പിന്നെ കുറച്ച് ഈ കമ്പോസ്റ്റ് അങ്ങനെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഇട്ട് വെച്ച് ഒര് ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞിട്ട് വേണം നമ്മള് തെങ്ങ് തൈ നടാൻ

അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്താലെ അല്ല അങ്ങനെ ഒക്കെ ചെയ്താലെ നമുക്ക് അതിൻ്റ കായ് ഫലം കിട്ടുകയുള്ളു തെങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് മതി മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പം ഇട്ടാലും മതി നമ്മള് ചപ്പ് ഒക്ക വെട്ടി ഇടല് നമ്മുടെ വേറെ ചെടി ഒക്കെ ഉണ്ടാവില്ലെ പുല്ല് ഒക്കെ വെട്ടി അതിന് ചൂട് ഉള്ള അത്യാവശ്യം എന്തായാലും മെയിൻ ആയിട്ട് ഇതിന് വെള്ളം കൊടുക്കണം റെഗുലർ ആയിട്ട് ആ അപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ അത് നോക്കിയിട്ട് ചെയ്താൽ മതി വെള്ളം നന്നായി കൊടുത്താൽ മതി വളം ഇപ്പം ആറ് മാസത്തിൽ ഒരിക്കൽ ഇട്ടാലും വെള്ളം നന്നായി കൊടുക്കുന്തോറും നല്ല കായ്ക്കലും കാര്യങ്ങളും കിട്ടും ഏയ് ഇല്ല അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ല അങ്ങനത്തെ ഇത് ഒന്നും വരില്ല അത് കൊണ്ട് ഒന്നും നമുക്ക് കുല ഉണ്ടാവാത്ത കുഴപ്പം വരില്ല അത് ഇപ്പം ഇപ്പം എടുക്കുന്നുണ്ടോ അതോ ഓ ഇപ്പം നോക്കിയിട്ട് പോവാൻ ആണോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഓ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഒര് പത്ത് അറുപത് എഴുപതോ തൈയ് ഉണ്ടെങ്കിൽ മതി ധാരാളം ആയി അത് ഒക്കെ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ഇപ്പം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞ് വെച്ചിട്ട് പോകണമെങ്കിൽ അങ്ങനെ നമ്മള് റെഡി ആക്കി പ്രശ്നം ഇല്ല പ്രശ്നം ഇല്ല

ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ അതെ അതെ ശരി കായ് നല്ലത് വരുന്നത് തന്നെയാണ് ഓക്കെ അപ്പം എന്നാൽ നാളെ കഴിഞ്ഞിട്ട് മറ്റെന്നാൾ വന്നാൽ മതി ഞാൻ നാളെ ഇന്ന് വീട്ടില് റെഡി ആക്കാൻ പറ്റില്ലല്ലൊ നാളെ കഴിഞ്ഞിട്ട് വന്നാലും മതി ഓ അത് ഒക്കെ റെഡി ആക്കാം റെഡി ആക്കാം ശരി ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരുമിച്ച് തന്നാൽ മതി എല്ലാം ഒരുമിച്ച് തന്നാൽ മതി ശരി ശരി